ഹലോ അ പറഞ്ഞോ എന്തേ

ആ നല്ല കാലാവസ്ഥയാണ് ഇവിടെ കേരളത്തിൽ നല്ല കാലാവസ്ഥയാണ് ആ നല്ല പ്രകൃതി ഭംഗിയാണ് അത് കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ ദെയ് കേരളം ആ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് ഇവിടത്തെ പ്രകൃതി ഭംഗി പിന്നേ ഇത് പോലത്തേ ആഹാര സാധനങ്ങൾ നല്ലതാണ് ആളുകൾ നല്ലതാണ് നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് പിന്നേ ഇത് ഇത് നല്ല ഒരു സിസ്റ്റമാണ് അതായത് പൈസ പേമെൻ്റിന് ഇതിൽ കൂടെ ചെയ്യാം നമ്മുടെ യുപിഐയിൽ കൂടെ ചെയ്യാം എല്ലാ എല്ലാ കാര്യങ്ങളിലും ഇവിടെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഇന്ത്യയിലേക്ക് ഏറ്റവും നല്ല നല്ല വിദ്യാഭ്യാസമുള്ള സ്ഥലം രാജ്യമോ ഏറ്റവും നല്ല പിന്നെ ആരോഗ്യപരിപാലനമുള്ള രാജ്യം ഏറ്റവും ആശ്പത്രികളൊക്കെയുള്ള കേരളത്തിലാണ് ഉള്ളത് ചികിത്സക്കൊക്കെ ഒരുപാട് പേർ വരുന്നുണ്ട് അ പിന്നെ എന്തിനാണെന്നുള്ള രീതിയിൽ ആ ചികിത്സകൊക്കെ ധാരാളം പേർ വരുന്നുണ്ട് നാട് കാണാൻ വരുന്നുണ്ട് പിന്നെ ദൈവത്തിൻ്റെ സംസ്ഥാനമാണെന്നാണ് പറയുന്നത് ആ കാലാവസ്ഥയും നല്ല കാലാവസ്ഥയാ വലിയ വലിയ ചൂടില്ല മിതമായിട്ടുള്ള കാലാവസ്ഥയാണ് പിന്നേ ചെറിയതായിട്ടുള്ള മഴയുണ്ട് ഇപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞു സ്ഥലമൊക്കെ കണ്ടു ആസ്വദിക്കാനായിട്ടുള്ള പറ്റിയ സാഹചര്യങ്ങളാണെന്ന് പറയാം കേരളത്തിന് വർഷത്തിൽ എല്ലാ മാസങ്ങളിലും എല്ലാ മാസങ്ങളിലും നല്ല ഒരുപാട് ഒരു ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ അടുത്ത് തന്നെ ചടയമംഗലം കാണാനുണ്ട് തേൻമല കാണാനുണ്ട് സംബന്ധിച്ചുള്ളത് കാണാനുണ്ട് അ പിന്നെ ഒരുപാട് പിന്നെ ക്ഷേത്രങ്ങളുണ്ട് അമ്പലം പിന്നെ പള്ളികളുണ്ട് അതെല്ലാം കാണാനുള്ള സ്ഥലങ്ങളാണ് ഒരുപാട് പിന്നേ ആലപ്പുഴയിൽ ആലപ്പുഴയിലോട്ട് പോയിക്കഴിഞ്ഞാൽ പിന്നേ ഇന്ത്യേയിലെ അപ്പം ഈ ഇതിലെ ജല ജല നിരപ്പിൽ നിന്ന് താഴ്ന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ആലപ്പുഴ കുട്ടനാടെന്ന് പറയുന്നത് അവിടെ വെള്ളം ഈ ഹൗസ് ബോട്ടുണ്ട് ഹൗസ് ബോട്ടിൻ്റെ ഉടമ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അങ്ങനെ ഒക്കെ ഇരിക്കുന്നത് കാണാൻ ആ അത് ആലപ്പുഴയുണ്ട് ആലപ്പുഴ ആലപ്പുഴയുണ്ട് അതുണ്ട് അതെല്ലാം കാണാൻ സാധിക്കും അതുപോലെ ആ ഒരു ആ ആ അതെല്ലാം കാണാൻ കാണാൻ നല്ല നല്ല സ്ഥലമാണ് ഒരാൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും വരും അതു അല്ല കടൽത്തീരങ്ങളുണ്ട് കടൽത്തീരങ്ങളുണ്ട് അതെല്ലാം ആ ഒരു പ്രാവശ്യം വരും ഒരു പ്രാവിശ്യം വരുന്നവർ പിന്നേയും വരും നേരിട്ട് കാണാൻ നേരിട്ട് കാണാനായിട്ട് ആ ആ നല്ല ഏറ്റവും നല്ല സ്ഥലങ്ങളാണ് അത് അ അ ആ അതും ആഹാര സാധനങ്ങളും ആ ആ മനുഷ്യരുടെ ഇടപെടലും ഒക്കെ നല്ല മറ്റുള്ള ഇന്ത്യേയിലെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ അപേക്ഷിച്ചു ഏറ്റവും മെച്ചമായിട്ടുള്ളത് കേരളത്തിലാണ് അതുപോലെ തന്നെ ടാക്സി ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ കൂടുതൽ ചാർജ് ചെയ്യത്തില്ല കൃത്യമായിട്ടുള്ള ചാർജ് ചെയ്യത്തുള്ളു എവിടെ എങ്കിലും യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആരും കളിപ്പിക്കത്തില്ല സാറിനെ അതുപോലെ കളിപ്പിക്കത്തില്ല എല്ലാത്തിനും ഒരൂ സത്യസന്ധത സത്യ സത്യസന്ധമായിട്ടുള്ള നാടാണ് ആ ആ ഏ ആ ആ ആ പിടിച്ചു പറി പിടിച്ചു പറി സാറേ ഇല്ലാ എന്നാലും രാത്രി ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നേ രാത്രിയിൽ അസമയത്തൊക്കെ പിന്നെ യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പിന്നേ അത് പിന്നെ രാത്രി പത്തു മണിക്ക് മുമ്പ് നിങ്ങൾ യാത്ര അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ആ എല്ലാം എല്ലാം സെക്യൂരിറ്റി സേഫ്റ്റി ഉണ്ട് എല്ലാ സേഫ്റ്റി സെക്യൂരിറ്റീ ഉണ്ട് അതിനൊന്നും വിഷമമില്ല ഇത് ഇവിടെ വരുന്നവർ വീണ്ടും വരിക ഇവിടെ വരുന്ന കാണാനായിട്ട് ആ പിന്നെ ആ പിന്നെ മലപ്രദേശങ്ങൾ മൂന്നാറുണ്ട് മൂന്നാറുണ്ട് തേയിലത്തോട്ടങ്ങളുണ്ട് അവിടെ

അത് അത് തീർച്ചയായിട്ടും അത് വന്നു അനുഭവിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ഏറ്റവും നല്ലതാണ് കേട്ടോ വന്നു വന്നു അനുഭവിച്ചു കഴിയുന്നവർ വീണ്ടും വരാതിരിക്കത്തില്ല എത്ര വർഷം കഴിഞ്ഞാലും വീണ്ടും വരും ശ്രീലങ്കയുടെ ബന്താരാമായവർ ഇവിടെ വന്നിട്ടു ചികിത്സ നടത്തിയിരുന്നു അ അ ശരി ആയിക്കോട്ടെ ശരി ആയിക്കോട്ടെ